എറ്റോം ഇഷ്ടമുള്ള വാക്ക് അമ്മ അമ്മയും അച്ഛനും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ ഉള്ളു വാക്കുകളല്ലേ ഉള്ളു അമ്മ അച്ഛൻ സഹോദരങ്ങൾ സ്നേഹം അതൊക്കെയാണ് ഏറ്റോം ഇഷ്ടമുള്ള വാക്കുകൾ പിന്നെ മലയാളം സംസാരിക്കാൻ അത് മാത്രം നമ്മുടെ മാതൃഭാഷയാണ് അതിനെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനാവില്ല ആരൊക്കെ എത്രയൊക്കെ ഉയർത്തി ഉയരത്തിൽ പറന്നാലും നമ്മുടെ മലയാളം എന്നുള്ള നമ്മുടെ മാതൃഭാഷയൊരിക്കലും മറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ മലയാളം മലയാളികളാണ് കേരളീയരാണ് നമുക്ക് നമ്മുടേതായൊരു തനിമയുണ്ട് മലയാളത്തിനതിൻറ്റേതായ ഭാഷക്കതിൻറ്റേതായ ഒരു വ്യക്തിത്വമുണ്ട് അത് കാരണം ആ ഭാഷയെ സ്നേഹിക്കുന്നു അത് മരിക്കുന്നോടം വരെ അത് തന്നെ സംസാരിച്ച് പോകാനാഗ്രഹിക്കുന്നു മലയാളത്തിനെ ഒത്തിരി സ്നേഹിക്കുന്നു നാടിനെ നമ്മുടെ കേരളത്തിനെ പോലെയോക്കെ ഇത്രയും ഭംഗിയുള്ളൊരു നാട് ഈ ലോകത്തിലില്ല അത്രക്കും എല്ലാ തരത്തിലും കുന്നുകളും മലകളും തടാകങ്ങളും പുഴകളും കടലുകളും ഒക്കെയായി എല്ലാ തരത്തിലും ഉള്ള എല്ലാം ഉണ്ട് നമ്മുടെ കേരളത്തിൽ അതുകൊണ്ടൊരു കേരളത്തിലെ ഒരു മലയാളിയായി ജീവിക്കാൻ പറ്റിയതിൽ ഒത്തിരി അഭിമാനമുണ്ട്